രാഷ്ട്രീയത്തിലും ഭരണകൂടത്തെയും ക്ഷേമത്തെയും കുറിച്ചുള്ള വാർത്തകളില് നമുക്ക് താൽപര്യമുണ്ടോ എന്ന് ചോദിച്ച് കഴിഞ്ഞാല് നമുക്ക് പൊളിറ്റിക്സിൽ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ ഇൻട്രസ്റ്റുള്ള വ്യക്തിയാണ് പക്ഷെ സമകാലീകമായിട്ട് രാഷ്ട്രീയത്തിൽ ഒരു സത്യം പറഞ്ഞാൽ താൽപര്യ കുറവാണ് ഇന്നത്തെ രാഷ്ട്രീയ നേതാക്കളുടെ ഓരോ പ്രവർത്തന ശൈലിയിലും അല്ലങ്കിൽ അവരുടെ ചില പരമാർശ പരാമർശങ്ങളിൽ ഒക്കെ നമുക്ക് വിയോജിപ്പുണ്ട് കാരണം സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ടാണ് അവരോരോ കാര്യങ്ങൾ സംസാരിക്കുക അവരുടെ വ്യക്തിപരമായ ലക്ഷ്യങ്ങൾ മാത്രമേ അവര് നോക്കുന്നുള്ളു പൊതുവെ സമൂഹത്തിൻറ്റെ നന്മയെയോ അല്ലെങ്കിൽ പൊതു സമൂഹത്തിൻറ്റെ ഉന്നമനത്തെ കുറിച്ചോ യാതൊരു വിധത്തിലും അവര് ചിന്തിക്കുന്നില്ല അവര് അതിനെക്കുറിച്ച് ബോതർ ചെയ്യുന്നതെ ഇല്ല അവർക്ക് അതിനൊട്ട് താല്പര്യവും ഇല്ല അവര് അവരുടേതായ വികസനം ഒരു വ്യക്തി എവിടുന്നെങ്കിലും ജോലി ചെയ്ത് അല്ലെങ്കിൽ വിദേശത്തോ എവിടെയെങ്കിലും കുറച്ച് കാശുണ്ടാക്കി തിരിച്ച് വരുമ്പോൾ ഒരു സ്ഥാപനം തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് എങ്ങനെ എങ്കിലും നശിപ്പിക്കുക മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും കൂടെ ചേർന്ന് അതെങ്ങനെയെങ്കിലും ഒക്കെ അവരിൽ നിന്ന് എത്ര മാക്സിമം ഊറ്റി എടുക്കാൻ ശ്രമിക്കുക ശ്രമിക്കുക എന്നൊരു ലക്ഷ്യം മാത്രമേ അവർക്കുള്ളു അതുകൊണ്ട് ഇത് വീണ്ടും ഈ വരുന്നവൻ എന്തെങ്കിലും എന്തെങ്കിലും തൊഴിൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നത് അത് അവൻ അവന് സാധിക്കാതെ അവൻ നിർത്തി പാതി വഴിയിൽ ഉപേക്ഷിച്ച് അവൻ ഇതിൽ വീണ്ടും വിദേശത്തക്ക് പോകുവോ അവന് പറ്റുന്ന അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിലേക്ക് കടക്കുകയോ ചെയ്യാം അപ്പം രാഷ്ട്രീയത്തെ കുറിച്ച് ഉള്ള സമകാലിക വാർത്തകള് നമ്മള് ശ്രവിക്കാറ് ഉണ്ട് പക്ഷെ അതിനകത്ത് എന്ത് പറയുക മാനുഷിക മൂല്യങ്ങൾ അല്ലെങ്കിൽ മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു കാര്യങ്ങളും സംഭവിക്കുന്നില്ല അല്ലങ്കിൽ വളരെ കുറച്ചു കാര്യങ്ങളെ ഉള്ളു എന്നാണ് കേരളം നല്ല രീതിയിലേക്ക് മാറുകയെന്ന് നമുക്ക് മനസിലാക്കാൻ സാധിക്കുന്നില്ല നമ്മൾ അയൽ സംസ്ഥാനങ്ങൾ ആയ തമിഴ്നാട്ടിലും കർണാടകത്തിലും എന്തെല്ലാം ജോലി സാധ്യതകൾ ആണ് കടന്നു വരുന്നത് അപ്പം ഇവിടെ ഇപ്പോഴും കടം എടുക്കാൻ മാത്രമുള്ളു രാഷ്ട്രീയക്കാർ ആഗ്രഹിക്കുന്നുള്ളു അവർ ആവശ്യമില്ലാത്ത വാർത്തകൾ എല്ലാം കുത്തിപ്പൊക്കി അത് വീണ്ടും വീണ്ടും അതിനെ ഇല്ലാത്ത കാര്യങ്ങളെ പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ചിട്ട് അവര് ഏതാണ്ട് ചെയുന്നു അല്ലങ്കില് കുറെ കാശ് മുടക്കി അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കാശ് മുടക്കിയിട്ട് അവര് അത് ചെയ്ത് ഇത് ചെയ്ത് എന്ന് കാണിക്കുന്നത് അല്ലാതെ ഒരു യഥാർത്ഥത്തിലുള്ള വികസനങ്ങൾ ഒന്നും ഇവിടെ സംഭവിക്കുന്നില്ല നല്ല രീതിയിൽ അതായത് പുതിയ വളർന്നു വരുന്ന തലമുറക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും നന്മ ഉണ്ടാകത്തക്ക വിധമായ ഒരു കാര്യങ്ങളും അല്ലങ്കിൽ പുതു ഇപ്പോഴത്തെ വളർന്നു വരുന്ന തലമുറ ഇവിടെ നിന്ന് നില ഇവിടെ നിക്ക് നിന്ന് വിദേശത്തേക്കൊന്നും പോകാതെ ജോലിക്കും മറ്റ് സൗകര്യങ്ങൾക്കും വിദേശത്തേക്കൊന്നും പോകാതെ ഇവിടെ തന്നെ തുടരാനുള്ള ഒരു സാഹചര്യങ്ങളും കണ്ടു വരുന്നില്ല അതാണ് ഏറ്റവും വലിയ ഒരു പരിതാപകരമായ അവസ്ഥ അപ്പോഴത്തേക്ക് ഇതാണ് എനിക്ക് പറയാനുള്ളത് രാഷ്ട്രീയത്തിൽ ഇന്നത്തെ ഇവിടെ ഭരണകൂടത്തെയും നമ്മുടെ സമൂഹത്തിൻറ്റെ ജന സമൂഹത്തിൻറ്റെ ക്ഷേമത്തെ കുറിച്ച് ഉള്ള വാർത്തകൾ വളരെ എന്താ പറയുക നമുക്ക് ആരെങ്കിലും ചെയ്താലല്ലെ നമുക്ക് വാർത്തകളായിട്ട് വരത്തുള്ളു അല്ലെങ്കിൽ മാധ്യമങ്ങളാണേലും അവരുടെ ബെനിഫിറ്റ് മാത്രം അവര് നോക്കുന്നുള്ളു അവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവര് പൊക്കി പിടിക്കും ഇല്ലാത്ത എല്ലാ അവര് അവര് പൂഴ്ത്തി വിടത്തേ ഉള്ളു അവര് ഒന്നും പുറത്തേക്ക് കൊണ്ട് വരുത്തില്ല അതാണ് അവരുടെ ഇവരുടെ ഈ സമൂഹങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രശ്നമായി കണ്ടു വരുന്നത്